ഹലോ ഇത് മൈ ഫുഡ് റെസ്റ്റോറൻറ് അല്ലേ ആ ആ എനിക്ക് ഇപ്പോഴത്തേക്ക് ഒരു ഏഴ് പേർക്കുള്ള മര മലബാർ ബിരിയാണി പുട്ട് കടല പിന്നെ ഇടിയപ്പം ഓർഡർ ചെയ്യാനായിരുന്നു പ്ലസ് രണ്ട് രണ്ട് പേർക്കുള്ള പിസ്സയും കൂടെ ലാർജ് ആ പിന്നെ എക്സ്ട്രാ ചീസ് വേണേ ഇത് ഒരു ഇന്ന് ഇപ്പോൾ ഒരു നാലുമണിയുടെ ഉള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു വേഗം ഫാസ്റ്റ് ഡെലിവറി പോസിബിൾ ആണോ ആ അഡ്രസ്സ് ഇവിടെ തൃശ്ശൂർ ചേരൂർ വിമല ഹോസ്റ്റൽ ഓക്കെ ആ പിന്നെ ബർഗർ അല്ലാതെ വേറെ എന്തെങ്കിലും ജ്യൂസസ് ഏതൊക്കെയാണ് മ് ആ

ഓക്കെ ഓക്കെ പിന്നെ വേറെ ബിരിയാണീൻ്റെ കാര്യത്തിലാണെങ്കിലോ ആ ആ ആ അപ്പം നമ്മൾ ഏഴ് ബിരിയാണിയല്ലേ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഏഴ് ആൾക്കാർക്കുള്ളത് അപ്പോൾ എക്സ്ട്രാ കിട്ടുന്നുണ്ടാവുമല്ലേ മൂന്ന് എണ്ണം കിട്ടുന്നുണ്ടാവും ഓക്കെ ഓക്കെ പിന്നെ മോക്ക്ടെയിൽസ് നമുക്ക് വേണം എന്നുണ്ടായിരുന്നു മോക്ക്ടെയിൽസ് ഏതൊക്കെയാണ് ഉള്ളത് ഗ്രീൻ ആപ്പിളിൻറെ ഉണ്ടാവുമോ മോക്ക്ടെയിൽ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ മംഗോയോ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാംഗോയും മൂന്ന് പാഷൻഫ്രൂട്ട് അത് മതി മൂന്ന് മാംഗോയും മൂന്ന് പാഷൻഫ്രൂട്ടും കൂൾ ആയിത്തന്നെ ഓക്കെ

അത് എങ്ങനെയാണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ നമ്മൾ ഗൂഗിൾ പേ ഒരുമിച്ച് അടയ്ക്കാം അതല്ല അപ്പോൾ നമ്മൾ ജി പേ ഇപ്പോൾ ജി പേ ഓൺലൈൻ ബുക്കിംഗ് വേണോ ഓൺലൈൻ ആയിട്ട് നമ്മൾ പേ ചെയ്യണോ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്നാൽ ജി പേ ചെയ്യാം കേട്ടോ ഈ നമ്പറിലേക്കാണോ അതോ വേറെ ഏതെങ്കിലും നമ്പറിലേക്കാണോ ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നാല് മണി ഒക്കെ ആകുമ്പോഴത്തേക്കിനും എത്തിക്കില്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യു